ഞാനൊരു ക്രഡിറ്റ് കാർഡ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ അതുപോലെ ബാങ്കുമായിട്ട് ബദ്ധപ്പെട്ട് അന്നേരം കെ വൈ സി മറ്റു കാര്യങ്ങളൊക്കെ വേണം അത് പിന്നെ ആധാറും ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കെ വൈ സി കൊണ്ടുവരണം അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ അക്ഷയയിൽ പോയി അതുപോലെ നിങ്ങളുടെ പിന്നെ അധാർ കാർഡും കൊണ്ടുപോയി ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യണം ഞാനത് അവിടെ അക്ഷയയിൽ ചെന്നു അവരത് സഹകരിച്ച് ഞാനെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ കെ വൈ സീ എല്ലാമായിട്ടുണ്ട് എല്ലാം ഇപ്പം കൊടുത്താൽ ഇനി ഇപ്പം ഞാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും